ഞാന് ഇന്ന് ഓഡറ് ചെയ്യുന്നതൊരു ഷോപ്പിങ്ങ് ചാനലിൽ നിന്ന് ഷോപ്പിങ്ങ് ഇതിൽ നിന്നാണ് ഓഡർ ചെയ്തത് സാരിയാണ് ഓഡർ ചെയ്തത് കണ്ടപ്പോൾ അതിൻ്റെ റിവ്യൂസ് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ നന്നായിരുന്നു വളരെ നന്നായിരുന്നു ഇപ്പോൾ നല്ലത് പോലെ തോന്നി നല്ല പ്രൊഡക്റ്റ് പോലെ തോന്നി ഞാൻ സാരിയാണതിൽ വാങ്ങാൻ നോക്കി വിലയും കമ്മിയായിരുന്നു അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലുള്ള ഒരിതായിരുന്നു അപ്പം എല്ലാം കൂടി കണ്ടപ്പോൾ നല്ലതായിരിക്കും വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തു ഒരാഴ്ചയുടെ മേലെയാണവര് ടൈം അതില് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഒൻപത് പത്ത് ദിവസത്തിനുള്ളിൽ കൊണ്ടുവരുന്നു പക്ഷെ അവര് ആ പത്ത് ദിവസം കഴി ആ പത്താമത്തെ ദിവസത്തിൻ കഴിഞ്ഞിട്ടാണവര് ആ എനിക്കത് കൊണ്ട് തന്നതും ആ ടൈമിന് അല്ലായിരുന്നു ഡെലിവറി ചെയ്തതും എന്നിട്ട് ആ കൊണ്ട് വന്നത് ഓപ്പൺ ചെയ്യുമ്പോളും പറഞ്ഞ കളറു എല്ലാ മെറ്റിരിയലും നല്ല മെറ്റിരിയലല്ല ഒരു പഴഞ്ചൻ തുണി പോലത്തൊരു മെറ്റിരിയിലായിരുന്നു ഇഷ്ട്ടപ്പെടുകയേ ഇല്ലായിരുന്നു നമ്മുടെ പൈസയും പോയ പോലെയായി ഒരു നല്ല പ്രൊഡക്റ്റ് കിട്ടിയില്ല അർജന്റ് ഒരിതിന് വാങ്ങുകയും ചെയ്തു ഒരിതിന് നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു പക്ഷെ ഞാനതില് വേറെ പ്രൊഡക്റ്റൊക്കെ എടുത്തപ്പോൾ നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടിയത് അത് വിചാരിച്ച് ഇത് എടുത്തതാണ് പക്ഷെ റിവ്യൂ ഫോട്ടോസൊക്കെ ഇതിലൊക്കെ നല്ലൊരു പ്രോഡക്റ്റായിരുന്നു അപ്പം അതെടുത്തപ്പോൾ അത് വീട്ടിലേക്ക് വന്നപ്പോൾ അത് നല്ല പ്രൊഡക്റ്റല്ലാണ്ടായി പിന്നത് റിട്ടേൺ പോളിസി ഉള്ളത് കൊണ്ട് ഞാനതപ്പം തന്നെ റിട്ടൺ കൊടുക്കുകയാണ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും അത് റിട്ടേൺ കൊടുക്ക് പറഞ്ഞത് കൊണ്ട് ഞാനത് റിട്ടേൺ കൊടുക്കുകയും ചെയ്തു ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കംഫർട്ടില്ലാത്തൊരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടിയത് അത് എടുത്തപ്പോൾ തന്നെ പിന്നെ അതിൽ നിന്ന് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് പോകുകയാണ് ചെയ്തത് ഇനി അങ്ങനെ വരുവോ ഇനി നല്ലത് വരാണ്ടിരിക്കുവോ എന്നുള്ളൊരു പേടി വന്നു സാരി ഇങ്ങനൊരു മോശവായ സാരി കിട്ടുമെന്ന് വിചാരിച്ചേയില്ല അത്ര മോശമായുള്ളൊരു സാരിയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ഇൻ അതു കൊടുത്തപ്പോൾ ഇനി സാരി അതിൽ ഓഡർ ചെയ്യില്ലാന്നൊരു ഇതുവന്നു ഇനി ഒരിക്കലും സാരി ഷോപ്പിങ്ങ് ചാനലിൽ നിന്ന് എടുക്കില്ല നേരിട്ട് കടയിൽ പോയി തന്നെ എടുക്കുകാന്നുള്ളൊരു ഇതാണ് വന്നത് അത്ര മോശായിരുന്നു പിന്നെ ഡെലിവറി ഇതാണെങ്കില് ഭയങ്കര ലേറ്റായിട്ടാണ് ഡെലിവറി ചെയ്തത് അവര് ഒരു ടൈം തന്നാൽ ആ ടൈമിന് എങ്കിലും ചെയ്യണന്നുണ്ടായിരുന്നു ഡേറ്റിനുള്ളില് ആ ഡേറ്റും കഴിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഒരു ഇതായിരുന്നു